കാരണം പാട്ടു പാടുകയെന്നുള്ളതെല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല അതു കിട്ടുന്നതൊരു പ്യുവർ സോൾസിനു മാത്രമാണ് അപ്പം തീർച്ചയായും നിങ്ങൾ പാടാൻ പോകുക അതുപോലെ തന്നെ നിങ്ങൾ പാട്ടു പാടുമ്പോൾ പാട്ട് പാടുന്നതിനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് തണുത്ത ഭക്ഷണം കഴിക്കാതിരിക്കാൻ വോയ്സിനു നല്ല റസ്റ്റ് കൊടുക്കുക അലറി കൂവി സംസാരിക്കരുത് പിന്നെ നല്ല ഈണത്തിൽ പാടാൻ ശ്രമിക്കുക നമ്മൾ തുടക്കത്തിലൊന്നും നമ്മൾ വൃത്തിക്ക് പാടുന്നവരായിരിക്കില്ല നമ്മൾ പാടി പാടി ശീലിക്കണം ഓരോ പാട്ടു കേട്ട് അതിനനുസരിച്ചു പാടാൻ നമ്മൾ തയ്യാറാകണം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പോരായ്മയായിരിക്കും പിന്നെ പിന്നെ അതു നമുക്ക് ശരിയായിക്കോളും അതുകൊണ്ടു തന്നെ നിങ്ങൾ നല്ല രീതിക്കു പാടാൻ ശ്രമിക്കുക